എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗാർഡനിംഗ് അങ്ങനെ കിട്ടിയൊരു ഗാർഡനിങ്ങാണ് എനിക്കുള്ളത് കാരണം എനിക്ക് പൂന്തോട്ടം പരിപാലിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്നു വച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ നമ്മൾ എന്ത് എവിടെ കണ്ടാലും ഒരു ഇപ്പം നമ്മളൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടൊരു ഫ്ലവറ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ തയ്യോ വിത്തോ എന്തെങ്കിലും മേടിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്യും എന്നിട്ട് അത് ചെറിയ ചെറിയ കവറിലൊക്കെ ആക്കി നട്ടിട്ട് അതിൽ നിന്ന് പൂവ് ഉണ്ടാവുന്നത് കാണുമ്പോഴുള്ളൊരു എന്താ പറയുക സംതൃപ്തി ഇപ്പോഴുണ്ട് കാരണം എന്നു വച്ചു കഴിഞ്ഞാൽ എവിടെപ്പോയാലും ആയിക്കോട്ടെ എൻ്റെ അമ്മ അങ്ങനെയായിരുന്നു ഒരുപാട് ചെടികൾ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് അത് അത് അതിൽ നിന്ന് ഒരു കിട്ടിയതാണ് എനിക്ക് പരിപാലനം ഭയങ്കര ഇഷ്ടമാണ് എന്താ പറയുക താൽപര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് കിളികളായിക്കോട്ടെ പൂമ്പാറ്റകളായിക്കോട്ടെ അവരൊക്കെ വരുന്ന കാണാൻപോലും ഈ പൂ പൂക്കളെല്ലാം വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻപോലും നല്ല രസമാണ് അതുകൊണ്ടുതന്നെ ഒരുപാട് റോസ ആയിക്കോട്ടെ ഡാലിയയായിക്കോട്ടെ ജമ്മന്തി ബന്തി അങ്ങനെ ഒരുപാടുണ്ട് ഒരുപാട് പ്ലാൻസുണ്ട് അതുപോലെതന്നെ മണി പ്ലാൻ്റ് അതുപോലെതന്നെ ഇൻ്റോർ പ്ലാൻസൊക്കെ വച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല രീതിയിലുള്ള ഫ്ലവേഴ്സായിക്കോട്ടെ അതുപോലത്തെ കുറേ ഹേങ്ങിങ്ങായിക്കോട്ടെ അങ്ങനെ ഒരുപാടുണ്ട് എൻ്റെ പൂന്തോട്ടത്തിൽ എനിക്ക് പരിപാലിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെതന്നെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് പരിപാലിക്കാൻ